ഹലോ ഇലക്ട്രിസിസ്സി ഓഫീസല്ലായിരുന്നോ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു പ്രസൻറ്റേഷന് സമയത്ത് ഇവിടെ കറണ്ട് പോയായിരുന്നു ഇമ്പോർട്ടൻറ്റായ പ്രസൻറേഷനായിയിരുന്നു ഈ വൈദ്യുതി ഇലക്ട്രിസിറ്റിടെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണമായിരുന്നു അപ്പം അത്യാവശ്യം ഒരു എത്ര നേരത്തിനുള്ളിൽ കറണ്ട് വരുമൊന്ന് ഒന്ന് അറിയാൻ സാധിക്കും ആയിരുന്നേൽ നല്ലത് ആയിരുന്നു കാരണം ഇത് ഇമ്പോർട്ടൻ്റായ ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു അപ്പോൾ വൈദ്യുതി ഇത് അറിയാൻ വേണ്ടി വന്ന് അത്യാവശ്യമായി തന്നെ വൈദ്യുതി ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പെട്ടെന്ന് തന്നെ ഇലക്ട്രിസിറ്റി ഒന്ന് ലഭ്യമാക്കണം എന്ന് അഭ്യർത്ഥിക്കുക ആണ്